നമ്മുടെ പ്രദേശത്തെ കർഷകരുടെ അവസ്ഥയൊക്കെ ചർച്ച ചെയ്യുമ്പോള് ചാനൽ ചർച്ചകളില് അല്ലെങ്കില് മാധ്യമങ്ങളില് ഒത്തിരി സത്യസന്ധത പുലർത്തുന്നതായിട്ട് കണ്ടിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം കർഷകര് അവരുടെ പ്രധാന ആൾക്കാരൊന്നുമല്ല പിന്നെ മാധ്യമങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാല് സഭയുടെ മാധ്യമം കൂടുതല് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവരുടെ സമരങ്ങള് ചെയ്യാറുണ്ട് അതായത് നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ നേതൃത്വത്തില് കർഷകർക്ക് വേണ്ടി സംസാരിക്കാറുണ്ട് എ കെ സി സി എന്നും പറഞ്ഞൊരു സംഘടനയുണ്ട് അവര് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യത്തിലും കർഷകർക്ക് വേണ്ടി സംസാരിക്കാറുണ്ട് അതുപോലെ ഇൻഫാം എന്നും പറഞ്ഞൊരു സംഘടനയുണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്കതൊന്നും വലിയ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പിന്നെ എന്തെങ്കിലും വരൾച്ച വരുമ്പോള് അവർക്കൊരു ന്യൂസാക്കാൻ വേണ്ടിയിട്ട് അവരത് സംപ്രേഷണം ചെയ്യുകയും കുറെയൊക്കെ അധികാരികളുടെ മുന്നിലെത്തിക്കാറുണ്ട് പിന്നെ നമ്മുടെ നിലവിലെയൊരു സ്ഥിതിയനുസരിച്ച് സർക്കാരിനൊന്നും ചെയ്യാൻ ആവില്ല എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് സാമ്പത്തികമായിട്ട് ഒരുതരത്തിലും കർഷകരെ സപ്പോർട്ട് ചെയ്യാനവർക്ക് സാധിക്കുന്നില്ല മാധ്യമങ്ങൾക്ക് അത് വലിയ പങ്ക് വഹിക്കാമായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് അവർക്ക് സ്പോൺസർമാരെ കണ്ടെത്തുകയോ അല്ലെങ്കില് സർക്കാരിൻ്റെ സംവിധാനത്തോട് ചേർന്ന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന കർഷകരെ സഹായിക്കാനൊക്കെയായിട്ട് അവർക്ക് സാധിക്കും വേണമെങ്കില് പല തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങള് ചെയ്യാൻ സാധിക്കും കർഷകരില്ലെങ്കില് ഈ സമൂഹം തന്നെ നിന്നുപോകും കാരണം കർഷകൻ അദ്ധ്വാനിച്ചില്ലെങ്കില് ഇവിടെയുള്ള സമൂഹം എങ്ങനെ നിലനിൽക്കും അവരുടെ ഭക്ഷണകാര്യങ്ങള് ആര് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരില്ലെങ്കില് ഈ ഐ ടി ഉദ്യോഗസ്ഥരോ ഈ കയ്യിലും കാലിലും ചെളി പറ്റിക്കാത്ത രാഷ്ട്രീയക്കാരോ എന്തെങ്കിലും കൊണ്ടുവന്നുതരുമോ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കടമ എല്ലാവർക്കുമുള്ളതാണ് അത് മാധ്യമങ്ങൾക്ക് മാത്രമല്ല ഓരോ മനുഷ്യർക്കും കർഷകരുടെ പ്രശ്നങ്ങള് ചർച്ച ചെയ്യേണ്ട ഒരു ഒരു സാഹചര്യത്തിലാണിത് കാരണം യുവതലമുറ ഇതില്നിന്ന് മാറിപ്പോയി ഇടത്തരം കർഷകര് ഭക്ഷണസാധനങ്ങള് കൃഷി ചെയ്യുന്നതില് നിന്ന് മാറി കാരണം വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കാരണം അവര് കാർഷികേതര കൃഷികളിലേക്ക് അതായത് ഏലം കുരുമുളക് അല്ലെങ്കില് ജാതി അങ്ങനെയുള്ള നാണ്യവിളകളിലേക്ക് ഓരോരുത്തരും മാറുകയാണ് കർഷകരെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവര് മാത്രമല്ല മണ്ണില് പണിയെടുക്കുന്ന നെല്കൃഷി അതുപോലെ കപ്പ ഇങ്ങനെയൊക്കെയുള്ള കൃഷി ചെയ്താൽ മാത്രമാണ് ഇനിയുള്ളൊരു നമ്മുടെ തലമുറയ്ക്ക് മുന്നോട്ടുപോകാൻ പറ്റുകയുള്ളൂ അവരെ പരിഗണിക്കാൻ ആരും തയ്യാറാകുന്നില്ല മാധ്യമങ്ങള് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊടുക്കണമെന്നാണ് ഞങ്ങള്ക്ക് പറയാനുള്ളത് കാരണം അത് ആരും അതിനെ ഗൗനിക്കുന്നില്ല മണ്ണില് പണിയെടുക്കുന്നവൻ വെറുതെ അവനൊരു കഴിവില്ലാത്തവൻ അവന് വേറെ പണിയൊന്നും അറിയാത്തതുകൊണ്ടവൻ പണിയുന്നു അങ്ങനെയൊരു സന്ദേശമാണ് പുതിയ തലമുറ ഈ കര്ഷകരെ കാണുമ്പോള് അവരുടെ മൈന്ഡിലുള്ളത് കാരണം ചെളിയില് പണിയുന്നവന് ഒരു വിലയും കൊടുക്കുന്നില്ല നമ്മുടെ സമൂഹവും കൊടുക്കുന്നില്ല ആരും കൊടുക്കുന്നില്ല അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് മാധ്യമങ്ങളും എടുക്കുന്നില്ല ശരിക്കും ഈ സമൂഹത്തില് നല്ല രീതിയിലൊരു മാറ്റം വരുത്താന് മാധ്യമങ്ങൾക്ക് സാധിക്കും കാരണം അവരുടെ ലോകം വിശാലമാണ് അവർക്ക് അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി ചര്ച്ച ചെയ്യാനും അല്ലെങ്കില് അവർക്ക് അവരത് മൂലമുണ്ടാകുന്ന അവരുടെ ബുദ്ധിമുട്ടുകള് അധികൃതരുടെ മുന്നിലെത്തിക്കാനുമൊക്കെ മാധ്യമങ്ങൾക്ക് സാധിക്കും ഒരു പ്രതിബദ്ധതയും വേണ്ടേ കർഷകരെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളീ ലോകത്തിലേറ്റവും കൂടുതല് ആദരിക്കേണ്ട ഒരു സമൂഹമാണെന്നാണ് എനിക്ക് മനസില് തോന്നിയത് കാരണം നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് തന്നെ കർഷകരാണ് കർഷകൻ മണ്ണിൽ പണിയെടുത്തില്ലെങ്കില് എത്ര പട്ടുമെത്തയില് കിടന്ന് ജീവിക്കുന്നവർക്കും അല്ലെങ്കില് ഏത് രാജകൊട്ടാരത്തില് കഴിയുന്നവന് അവന് ഭക്ഷണം കഴിക്കാതെ മുന്നോട്ടുപോകാൻ പറ്റില്ലല്ലോ ആത്യന്തികമായിട്ടൊരു മനുഷ്യൻ്റെ ആവശ്യം വായു വെള്ളം വസ്ത്രം ആഹാരം ഇതൊക്കെയില്ലാതെ ഒരു മനുഷ്യന് അടിസ്ഥാന മായിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അത് ചെയ്യുന്ന കർഷകനെ ആദരിക്കാനോ അവനെ ബഹുമാനിക്കാനോ കഴിയാത്തൊരു സമൂഹത്തില് നമ്മള് ജീവിക്കുമ്പോള് മാധ്യമങ്ങൾക്ക് നല്ല രീതിയില് അവരെ പ്രൊമോട്ട് ചെയ്യാൻ അവരെ മുന്നോട്ട് കൊണ്ടുവരാന് സാധിക്കും അവരത് അവരുടെ കടമകള് കുറെക്കൂടി ഉത്തരവാദിത്തത്തോടെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം അത് കണ്ടെങ്കിലും അടുത്തൊരു തലമുറ അതിലേക്ക് ആകർഷിക്കപ്പെടട്ടെ ഇത് നല്ലൊരു ജോലിയാണ് അല്ലെങ്കില് ഇതിന് ഇത് മനുഷ്യന് ഏറ്റവും മാനിക്കപ്പെടാവുന്ന ഒരു തൊഴിലാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് മാധ്യമങ്ങള് പരിശ്രമിച്ച് കഴിഞ്ഞാല് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെയൊരു സാമൂഹ്യപ്രതിബദ്ധത ഓരോ ചാനലുകാരും അല്ലെങ്കില് മാധ്യമങ്ങള് പേപ്പര് പത്രമാധ്യമങ്ങള് എടുക്കുകയാണെങ്കില് നമ്മുടെ കാർഷിക മേഖലയിലും ഒരുപാട് മാറ്റങ്ങള് വരുത്താൻ സാധിക്കും ആത്മാര്ത്ഥമായിട്ടും സത്യസന്ധമായിട്ടും അവരതിന് വേണ്ടി ശ്രമിക്കട്ടെ അങ്ങനെ ആശംസിക്കുന്നു